ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇന്ത്യൻ വിനോദസഞ്ചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യാപിച്ചിരിക്കയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്ന ആ ടൈപ്പൊക്കെ മാറി എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഏത് മതത്തിൽ പെട്ട ആൾക്കാരാണെങ്കിലും എല്ലാ സ്ഥലങ്ങളും കാണണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ടാവും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പോവാൻ ഉള്ള അവകാശമൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും കൂടുതലായിട്ടും റൈഡുകളായിട്ട് പോവുന്നവരുണ്ട് അല്ലാണ്ട് കുടുംബത്തോടെ പോവുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും ഓരോ സ്ഥലങ്ങൾ കാണാൻ പോവുന്നവരൊക്കെയുണ്ട് ഇപ്പോൾ ജമ്മു കാശ്മീർലൊക്കെയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും മഞ്ഞുവീഴ്ചയും അവിടുത്തെ സ്ഥലങ്ങൾ മലകൾ ഈ അങ്ങനെ ഹിമാലയൊക്കെ ഹിമാലയം പ്രദേശങ്ങൾ അതൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരൊക്കെയുണ്ടാവും അപ്പം അവിടൊക്കെ പോയിട്ട് അതൊന്ന് എൻജോയ് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മെയിനായിട്ട് നല്ല രസമാണ് പിന്നെ താജ്മഹല് കാണാൻ പോവുക താജ്മഹാലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുംതാസ്സിന് വേണ്ടി ഷാജഹാൻ കഴിപ്പിച്ച ഒരു ഇതാണ് അപ്പം ഒരു കൊട്ടാരമാണ് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവുക അത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കെട്ടിടം ആണത് എന്താ പറയാ ഒരു രൂപം ആണത് അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ പോവാറുണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇതൊക്കെ